സാധാരണയായി കുട്ടികളൊക്കെ ഗെയിംസ് കളിക്കാന്നു പറഞ്ഞിട്ടുണ്ടെങ്കി പണ്ടത്തെ കാലത്തൊക്കെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ പുറത്തുപോയി അവരുടെ ഫ്രൻഡ്സൊക്കെ ഒത്തിട്ട് ക്രിക്കറ്റും ഫുട്ബോളും കളിക്കലാണ് പതിവ് എന്നാൽ ആ കോറോണയുടെ ഒരു ടൈ കഴിഞ്ഞതിൽ പിന്നെ എല്ലാ കുട്ടികൾക്കും ഫോണിൻ്റെ അഡിക്റ്റായി മാറിയിരിക്കയാണ് ഫോണിൽ പബ്ജി പിന്നെ ഫ്രീഫയർ അങ്ങനത്തെ ഓൺലൈൻ ഗെയിംസൊക്കെ കളിച്ച് അതിൽനിന്ന് അഡിക്റ്റായി ഫോണിൽ നിന്ന് ഇറങ്ങാത്ത രീതിയിലുള്ള കളികളിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് ഇപ്പത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഫോണിലാണ് ഗെയിംസൊക്കെ കളിക്കാറ് പുറത്തുപോയി കളിക്കുന്നതെല്ലാം കുറവാണ് എവിടേലും ചില സ്ഥലത്തൊക്കെയാണ് കുട്ടികളിപ്പം ചെറുതായിട്ട് ഇങ്ങനെ പോയികളിക്കാറ് അല്ലാണ്ട് എല്ലാവരും ഇപ്പോൾ ഫോണില് അഡിക്റ്റേഴ്സാണ്